നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇടുക്കി ജില്ല എന്ന് പറയുന്നത് ഭക്ഷ്യ വിളകളുടെ ഒരു കേന്ദ്രമാണ് അതുപോലെ തന്നെ സുഗന്ധവ്യജനങ്ങളുടെയും ഇടുക്കി ജില്ലയില് വള വിളയാത്ത സുഗന്ധവ്യഞ്ജനങ്ങളില്ല ഏലം ഗ്രാമ്പൂ കാപ്പി കുരുമുളക് കൊക്കോ റബറ് ഏലക്ക

അങ്ങനെത്ത കാര്യങ്ങളെല്ലാം തന്നെ ഇടുക്കി ജില്ലയിൽ വളരുന്നതാണ് പിന്നെ ഭക്ഷ്യ വിളകളായ കപ്പ ചേമ്പ് കാച്ചില് കിഴങ്ങ് വർഗങ്ങളായിട്ടുള്ള ഇവകള് പിന്നെ ഇലച്ചെടികള് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള നിരവധി നിരവധി സാധനങ്ങള് നമ്മുടെ ജില്ലയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് മറയൂർ കാന്തന്നൂര് ഇടുക്കി ജില്ലയുടെ മറയൂർ കാന്തന്നൂര് സൈഡുകുകളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്യാരറ്റ് വെളുത്തുള്ളി അങ്ങനനെയുള്ള ഇവിടെ പ്രധാന കേന്ദ്രമാണ് ഈ മൂ മൂന്നാർ സൈഡ് പിന്നീട് നമുക്ക് നോക്കുമ്പോൾ ഈ ഇടുക്കി ജില്ലയുടെ തന്നെ മലയോര പ്രദേശങ്ങളായ എടുത്ത് നോക്കുമ്പോൾ കൂടുതലായിട്ട് ഏല കൃഷിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏല കൃഷിയിൽ തന്നെ നിരവധി കീടങ്ങളെ കീടബാധകൾ ബാധിക്കുന്നുണ്ട് അവയുടെ വിളകൾ കുറയ്ക്കാനും കൃഷി നാശത്തിനും സംഭവിക്കുന്ന നിരവധി കാരണങ്ങൾ ഈ കീടങ്ങൾ കൊണ്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഈ ഏലച്ചെടികളെ ബാധിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ചൂട് കൂടി കഴിയുമ്പോൾ ഇവ വാടിപ്പോവാൻ കരിഞ്ഞ് പോവാനും പെട്ടെന്ന് ചീച്ചിലുണ്ടാവാനും കൂടുതൽ ഏലത്തിന് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ മഴയിട മഴ കൂടുതൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി ഈ ഏല തട്ടകൾക്കിടയിൽ വെള്ളം ഇറങ്ങി ചീച്ചലുകൾ വന്ന് പിന്നെ അത് ഫംഗസ് ബാധിച്ച് കാകൾ പൊഴിഞ്ഞ് പോകാനും പിന്നെ അത് ഏലച്ചെടിയെ മുഴുവൻ നശിപ്പിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളി കളയാൻ പറ്റുകയില്ല പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ ബാക്കിയുള്ള എല്ലാ ചെടികളെയും കാലാവസ്ഥ ചൂട് കൂടുതലാണെങ്കിൽ അവയെ പെട്ടെന്ന് തളർത്തി കളയുവാനും വര വരൾച്ച കാരണം അവ

ഇത്തരത്തിലുള്ള കായകളെ അധികം ബാധിക്കാൻ സാധ്യതയുള്ളതും വെയിലിൻ്റെ ഒരു കൂടുതൽ മാത്രമാണ് അവയ്ക്ക് കൂടുതലും കേടിൻ്റെ പ്രശ്നങ്ങള് വരുള്ളൂ പിന്നെ പറയുന്നത് നമ്മുടെ കിഴങ്ങ് വിളകളായ കപ്പ ചേന കാച്ചില് ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ളവയ്ക്ക് കൂടുതലായിട്ടും കാലാവസ്ഥ പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വന്യമൃഗ പ്രശ്നങ്ങൾ കൊണ്ടുമായാണ് കൂടുതലായിട്ടും ബാധിക്കപ്പെടുന്നത് ഇവ ബാധിക്കപ്പെടുന്നത് നമുക്കതായത് കൂടുതലായും കാട്ട് പന്നികളാലും എലി എലികളാലും മറ്റ് മറ്റ് മൃഗങ്ങളാലും കൂടുതലായിട്ടും ഇവ വന്ന് മണ്ണ് കുത്തി തുരന്ന് ഈ കിഴങ്ങുകൾ കൊണ്ട് പോകുകയും കർഷകന് അവന് കിട്ടേണ്ട ലാഭം അവന് കിട്ടേണ്ട വിള ഇവ കൊണ്ടുപോയി കഴിക്കുകയും വലിയൊരു കടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ഈ കാട്ട് പന്നികളുടെ പിന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ധാരണം കിഴങ്ങുകൾ ഇങ്ങനെ ചീഞ്ഞ് പോവാനും അതായത് കൂടുതലും മഴ പെയ്ത് വെള്ളമായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ വിളകൾ വെള്ളത്തിനടയിയിലാവുകയും ഈ വെള വിളകൾ ചീഞ്ഞ് പോവാനും ന നല്ല സാധ്യകളുണ്ട് പിന്നീടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നമ്മള് ന നല്ല കാറ്റൊക്കെ വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ വേഗതയിലുള്ള കാറ്റ് വീശി കഴിഞ്ഞാൽ ചെടികളിലുണ്ടാകുന്ന കായ് ഫലങ്ങളെ ഒന്നും അത് അതിൻ്റെ ഫലഭൂഷ്ടി ആകുന്നതിന് മുൻപ് തന്നെ പൊഴിഞ്ഞു പോവാനും അവ ആ കർഷകന് വേണ്ടൊരു വിളയായി കിട്ടാതെയും പോവുന്ന അവസ്ഥകൾ ധാരാളുണ്ട് അതായത് നമ്മുടെ വാഴക്കൃഷി തന്നെ നമ്മളെടുക്കുവാണെങ്കിൽ ഇതൊരു ശക്തമായ ഒരു കൊടുങ്കാറ്റ് വന്ന് കഴിഞ്ഞാൽ തന്നെ ഈ കർഷകൻ നട്ടിരിക്കുന്ന പത്തും രണ്ടായിരും മൂവായിരും നാലായിരം വാഴകൾ വെച്ചിരിക്കുന്നിടത്ത് വേരും ഇല്ലാതെ നിശേഷം അത് നഷ്ടപ്പെടുത്തി കളയാനുള്ള ശേഷി ഈ കാറ്റുകൾക്കുണ്ട് അതുപോലെ തന്നെ നല്ല നിരന്ന പ്രദേശത്താണ് വാഴകൾ നടുന്നത് അതുപോലെ തന്നെ ശക്തമായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴ കാരണം തന്നെ വെള്ളം കൊണ്ട് ഇവയെ മൊത്തം ഈ ചെടികൾ ഈ വാഴ വാഴയുടെ അടിയിൽ മൊത്തം വെള്ളവായി അവ മൊത്തം ചീഞ്ഞ് പോവാനുള്ള സാധ്യതകളുണ്ട് ഇവയ്ക്കെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ഏലത്തിനായിട്ട് നല്ല പരിഹാരം എന്ന് പറയുന്നത് ആവശ്യമായ കീടനാശിനികൾ അഥവാ മരുന്ന് മരുന്ന് പ്രയോഗത്തിലൂടെയും ഇവയേ നമുക്ക് തുരത്താൻ സാധിക്കും ഒരു പരിധി വരെ ആ പരിധിയിൽ കൂടുതൽ മാറ്റണമെങ്കിൽ സർക്കാരുകൾ കൃഷിക്കാർക്ക് കൂടുതലായിട്ട് സബ്സിഡി രീതിയിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്താൽ മാത്രമേ അവർക്ക് കർഷകർക്ക് കൂടുതലായിട്ട് ഇനി മുന്നോട്ട് പോവാൻ പറ്റുള്ളു കാരണം നഷ്ടത്തിന് വേണ്ടി അവർക്ക് ഈ കൃഷി നടത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്തെങ്കിലും ലാഭം ഉണ്ടാകണേൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സബ്സിഡി രീതിയിൽ എന്തെങ്കിലും ഫണ്ടിനെ കുറച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ധനസഹായം നൽകിയിട്ട് വേണം ഈ കൃഷിക്കാർക്ക് ഈ ഇത്തരത്തിലുള്ള കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളു ഇനിയുള്ള സർക്കാരിൻ്റെ നടപടികൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കീടനാശിനികളുടെ പ്രയോഗം കുറച്ചൊക്കെ അനുവദിക്കണം അല്ലെങ്കിൽ ഈ കൃഷികളെ കൂടുതലായിട്ടും വണ്ട് കുത്തിയും ഫംഗസ് കയറിയും പോവാനുള്ള സാധ്യത അനവധിയാണ് പിന്നെ ഈയിനം കൃഷി എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് കൂടുതലായിട്ടും കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നതൊന്നുവല്ല കാരണം ഇവയിൽ എപ്പോൾ വേണേലും വണ്ടിൻ്റെ ആക്രമണത്താലും എലികളുടെ ശല്യത്താലും നശിപ്പിച്ച് കളയാൻ പറ്റുന്നവയാണ് അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള മരുന്ന് പ്രയോഗവും വിഷത്തിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്കിതിനെ ഒരു പരിധി വരെ തടഞ്ഞ് നിർത്താൻ സാധിക്കത്തുള്ളു